ഇപ്പം ഒരു പാചക ഏറ്റവും അപൂർവ്വമായിട്ടുള്ള ചേരുവ ഏതാണെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപൂർവാണോന്ന് എനിക്കറിയില്ല എനിക്കത് അപൂർവമായിട്ട് തോന്നി എൻ്റെ അമ്മയൊക്കെ സാമ്പാർ എങ്ങനെ വയ്ക്കും അമ്മ സാധാരണ ഞാനും അതുപോലെ തന്നെയാണ് വയ്ക്കാറ് കാരണമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മള് പരിപ്പ് വേവിക്കും പിന്നെ പരിപ്പ് വേവിച്ചതിനു ശേഷം പിന്നെ രണ്ട് വിസിൽ ഇട്ട് വേവിച്ചതിനു ശേഷമാണ് കഷ്ണങ്ങളോട്ട് ഇത്തിരി മുളകുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് അതിന് ശേഷം പിന്നെ അത് വിസിലൊക്കെ അതായത് രണ്ട് വിസില് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മല്ലിപ്പൊടി സാമ്പാർപ്പൊടിയൊക്കെ നല്ലോണം ഇട്ട് കായപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് പിന്നെ പിന്നെ അത് നല്ലോണം തിളപ്പിക്കുക തേങ്ങ ഇട്ടതിനു ശേഷം തേങ്ങ വെറുതെ അരക്കുകയേ ഉള്ളു അരച്ച് ഇട്ടിട്ട് ശേഷമാണ് ഇതൊക്കെ ഇടുക ഇത് അപ്പം അമ്മ ആദ്യമൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും ചെറിയൊരു മധുരം ഉണ്ടാവുമായിരുന്നു മധുരം ഉണ്ടാകും മധുരമെന്ന് വച്ചാൽ ചെറിയ ലൈറ്റ് ആയിട്ടൊരു മധുരം ഉണ്ടാവും അത് അപ്പം അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ചെറിയ ഒരു നുള്ള് വെല്ലം ഇട്ടിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് ഭയങ്കര ടേസ്റ്റിയായിരിക്കും ആ ചേരുവയാണ് എനിക്ക് അപൂർവമായിട്ട് തോന്നിയത്